ഹലോ എന്തായിരുന്നു അതേലോ എത്ര ദിവസായി തുടങ്ങിയിട്ട് അപ്പം പിന്നെ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഈ കൊറോണ ടൈം ആണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് വല്ല ഫംഗ്ഷൻ എന്തേലും അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഓക്കെ അവിടെ ആർക്കെങ്കിലും കൊറോണ ഉള്ളതായിട്ടെങ്ങാനും അറിഞ്ഞോ ഒക്കെ ഇപ്പം എത്ര ദിവസമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് എത്ര ദിവസായി ഓക്കെ അപ്പം വേറെ വല്ല പ്രശ്നാണോ മേല് വേദന വോമിറ്റിംഗ് തൊണ്ടവേദന അങ്ങനെ വേറെ വല്ലതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

രുചിയൊക്കെ കിട്ടുന്നുണ്ടോ ഫുഡ് കഴിക്കുമ്പം ഓക്കെ ആണോ ആ അതുശരി അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം കൊറോണ ടെസ്റ്റിന് എന്തായാലും എഴുതാം അപ്പം അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കൊറോണ ടെസ്റ്റ് ചെയ്ത് നോക്ക് പിന്നെ പാരസിറ്റമോൾ കഴിക്കുക അതുമാത്രമെ ഇപ്പം എഴുതുന്നുള്ളൂ എന്നിട്ട് നമുക്ക് നോക്കാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താന്ന് ചെയ്യുക പിന്നെ ഇപ്പം ചെയ്യണ്ടത് നിങ്ങളുടെ വീട്ടിൽ കുറെ പേരുണ്ടെങ്കില് നിങ്ങള് റൂമിൽ തന്നെ ക്വാറൻറ്റയിനായിട്ട് ഇരിക്കാൻ നോക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇളം ചൂട് തണുത്ത വെള്ളം കുടിക്കാതെ ചൂട് വെള്ളം കഴിക്കുക അതായത് ഫുഡ് ആണെങ്കില് ചൂടോടെ കഴിക്കാൻ നോക്കുക സാനിറ്റയിസർ നന്നായിട്ട് യൂസ് ചെയ്യണം പിന്നെ രണ്ട് നേരം കുളിക്കുക എന്തായാലും നോക്കാം എന്തായാലും പാരസിറ്റമോള് കയ്യിലുണ്ടെങ്കില് അത് കഴിക്കുക വേറെ ആർക്കെങ്കിലും വീട്ടില് ഇതേപോലത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ അതെയോ അപ്പം നിങ്ങള് സ്പ്രെഡ് ആവാതെ വേറെ ആരിലേക്കും എത്തിക്കാതെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ ഏഴ് ദിവസം മിനിമം ഇരിക്കണം എന്നാണ് എന്തായാലും പിന്നെ ടെസ്റ്റ് ചെയ്താലാ പിന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുകയുള്ളു എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്ക് അടുത്തുള്ള എവിടെയെങ്കിലും പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ വീട്ടിൻ്റടുത്തുള്ള പിന്നെ ആൾക്കാരെ വിളിച്ചാൽ മതി ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നോക്കാം ഇപ്പം എന്തായാലും കയ്യിലുള്ള കയ്യിലെന്ത് മരുന്നാണ് ഉള്ളത് ഓക്കെ ഓക്കെ പാരസിറ്റമോള് നല്ലതാണ് പനിക്കാണെങ്കിൽ നല്ലതാണ് അപ്പം ആദ്യം പാരസിറ്റമോള് കഴിക്കുക പിന്നെ വെള്ളം കുടിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തിളപ്പിച്ചിട്ടിട്ടുള്ള വെള്ളം കുടിക്കുക അത് ഒരു മെഡിസിൻ ആണ് അപ്പം അതുകഴിഞ്ഞിട്ട് നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കാം